മറ്റ് എഴുത്തുകാരുടെ എഴുത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ എൻ്റെ എഴുത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം എല്ലാവരും എഴുതുന്നത് അവരവരുടെ ജീവിതം തന്നെയായിരിക്കും സ്വന്തം ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരംശങ്ങൾ എല്ലാവരുടെയും എഴുത്തുകളിൽ കാണാൻ ദർശിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും ഞാൻ എഴുതുന്ന എല്ലാ എഴുത്തിലും എവിടെയെങ്കിലും ജീവിതത്തിൻ്റെ ഒരംശം ദർശിക്കാൻ സാധിക്കും എഴുതുന്ന രണ്ടു വരികൾ മാത്രമുള്ള ചെറിയ ഒരു കവിതയാണെങ്കിൽ പോലും അതില് അത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ അംശങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ ഞാൻ ഇപ്പോളെഴുതുന്ന എഴുത്തുകളിൽ പ്രണയവും വിരഹവും മാത്രമാണ് വിഷയമായിട്ടുള്ളത് മറ്റ് മറ്റ് കാര്യങ്ങൾ കൂടി എൻ്റെ എഴുത്തുകളിലൂടെ കടന്നു വരണമെന്ന് ഞാനാഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കടന്ന് വന്ന് എൻ്റെ എഴുത്തിനെ മെച്ചപ്പെടുത്തണമെന്ന് ഞാനാഗ്രഹിക്കുന്നുണ്ട്